സംസ്കൃതത്തിൽ നിന്നുമാണ് മലയാള ഭാഷ തന്നെ ഉണ്ടായത് സംസ്കൃതം മലയാളോ ആയിട്ട് വളരെ സാമ്യമുള്ള ഭാഷയാണ് സംസ് മലയാള ഭാഷയിൽ നിന്ന് ഇപ്പോൾ നാം ഇംഗ്ലീഷിൽ ഇംഗ്ലീഷുമായിട്ടു തന്നെ സാമ്യപ്പെടുത്തി വരികയാണ് നാം ഇപ്പം ഉദാഹരണമായിട്ട് നാം ചെയർ ബെഡ് ഷീറ്റ് ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ മല ഇംഗ്ലീഷാണ് എങ്കിൽ തന്നെയും മലയാള ഭാഷ ആയിട്ട് നാമത് കൂട്ടിക്കലർത്തി ഉപയോഗിക്കാറുണ്ട് പെട്ടെന്നങ്ങനെ മലയാളികൾക്കങ്ങനെ വന്നുകൊണ്ടിരിക്യ നാം കൂടുതലും ഇംഗ്ലീഷുകാരിവിടെ വന്ന് ഇങ്ങനെ നമ്മളെ ക്ക് പ്രോത്സാഹനം തന്ന് നാം ആ രീതിയിലായി കഴിഞ്ഞിരിക്കുകയാണ് മലയാളം ആണ് നമ്മുടെ ഭാഷയെങ്കിൽ തന്നെയും ഇംഗീഷിൽ കൂടുതൽ ഇംഗ്ളീഷാണതിൽ കൂടുതൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പിന്നെ സംസ്കൃതം സംസ്കൃതമാണ് സാധാരണ ആൾക്കാർക്കറിയാൻ വയ്യാത്ത ഭാഷ പക്ഷെ സംസ്കൃതത്തിൽ നിന്നുമത് മലയാളത്തിലേക്ക് ആൾക്കാർ തർജ്ജിമ ചെയ്ത് പണ്ടത്തെ ആൾക്കാർ തർജ്ജിമ ചെയ്ത് വന്നത് കൊണ്ട് ഇപ്പം മലയാളഭാഷയായി നമ്മുടെ ഭാഷ